എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ലാപ്ടോപ്പായിരുന്നു ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് വലിയ മോശമില്ല പക്ഷേ നെഗറ്റീവ് ആയിട്ട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത് ലാപ്ടോപ്പിൻ്റെ ഡിസൈൻ തന്നെയാണ് തീരെ ഒരു വൃത്തിയില്ല ഭയങ്കര ഒരു പഴയ ലുക്കാണ് പിന്നെ കളറും ഒരു ബ്ലാക്ക് ആന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് പക്ഷെ ബ്ലാക്ക് തന്നെ ഒരു ഒരു ഭയങ്കര ഒരു ഗ്ലേയ്സി ബ്ലാക്കായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടന്ന് സ്ക്രാച്ച് പോറല് പിന്നെന്തോ ഒര് എണ്ണമയം പിടിക്കുന്ന പോലെ അങ്ങനൊരു മൊത്തത്തിലൊരു അങ്ങനെ ആയിരുന്നു പിന്നെ റാമും കുറവാണ് സ്പീഡ് കുറവാണ് നല്ല സ്പീഡ് കുറവായിട്ടുള്ള പോലെ തോന്നി പിന്നേ പെട്ടെന്ന് ഹീറ്റാവുന്നുണ്ട് അധിക നേരം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഹീറ്റാവുന്നുണ്ട് പിന്നെ ബാറ്ററി ബായ്ക്കും ബാറ്ററി ബാക്കപ്പും മറ്റ് ആ സീരീസിലുള്ള ലാപ്ടോപ്പിനെ വെച്ച് കംപെയറ് ചെയ്യുമ്പം ബാറ്ററി ബാക്കപ്പും അത്യാവശ്യം കുറവ് പോലെ തന്നെയാണ് പിന്നെ ചാർജ് ആവാനും കുറച്ച് ടൈമ് എടുക്കുന്ന പോലെ തോന്നി അപ്പം മൊത്തത്തില് ഇതൊക്കെയാണ് എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയത്